അങ്ങനെ ഉള്ള ചിത്രവൊന്നും ഞാൻ വരച്ചിട്ടില്ല പക്ഷെ ചിലപ്പം പറയും കെട്ടോ നല്ല രസമുണ്ട് വരയ്ക്കാന് ഞാനൊരു പ്രാവശ്യം പിന്നെ കണ്ണൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് എല്ലാവരും ഈ വെണ്ണ വച്ചിട്ടുള്ള കണ്ണൻ പലപ്പോഴും ഒരു ഇതാവാറില്ല പക്ഷേ നിരന്തരമായ പരിശ്രമത്തിലൂടെ അത് വരച്ചിട്ടുണ്ട് അതിനെന്താ പറയുക ആ അതിന് ആഴം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിന് ഒര് അർത്ഥവുണ്ട് ആ ഒരു എന്താ പറയുക എൻ്റെ മനസ്സില് വഴ വളരെ ആഴത്തിൽ പതിഞ്ഞൊരു ചിത്രമാണ് ഉണ്ണി കണ്ണൻ്റെ ആ ചിത്രം എനിക്ക് വരയ്ക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മനഃപൂർവമല്ല അത് ഒരു നിരന്തരമായ ശ്രമത്തിലൂടെ ഇതായതാണ് പക്ഷേ അത് വി വിജയകരമായപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതേപോലെ ഇനിയും നല്ല നല്ല ചിത്രം കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കിന്നുണ്ട് അതേപോലെ തന്നെ വരയ്ക്കാൻ പറ്റണേ എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട് കെട്ടോ എനിക്ക് ഇഷ്ടമാണ് വരയ്ക്കുന്നത് പക്ഷെ എപ്പഴും നമുക്ക് സ്ഥിരം ആയി നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റി എന്ന് വരില്ല പക്ഷെ അന്നെന്തോ എനിക്ക് നാലഞ്ച് പ്രാവശ്യം കഴിഞ്ഞ് പിന്നൊരു ഇതില് ഞാനൊന്ന് വരച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വരച്ചപ്പം ശരി ആയായിരുന്നു അത്